ഇപ്പോള് പുതിയതായിട്ട് ഉയർന്നുവരുന്ന ഇന്ത്യയിൽ നമുക്ക് സാധാരണയായിട്ട് കാണാൻ സാധിക്കുന്നത് യൂ ട്യൂബർമാരുണ്ട് പലതരത്തില് യൂ ട്യൂബില് അവരുടെ പ്രോഗ്രാംസ് ക്രിയേറ്റെയ്ത് അവര് അതുവഴിക്ക് ധാരാളം കാശ് നേടുന്നുണ്ട് വ്ളോഗര്മാരുണ്ട് പിന്നെ സ്വിഗി പാര്ട്ടൈമായിട്ട് സ്വിഗ്ഗി ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്ന ഒരു പ ആൾക്കാരുണ്ട് പിന്നെ ഓൺലൈനില് അക്കൗണ്ടൻസി ഫീൽഡില് ധാരാളം കണക്കുകള് ഇപ്പോള് ഓൺലൈനിലാണ് വിദേശത്തുള്ളവരുടെ പോലും കണക്കുകള് ഓൺലൈനില് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് ഫാർമസ്യൂട്ടിക്കൽസ് എക്യുപ്മെൻസും സംഗതികളൊക്കെ മരുന്നുകളൊക്കെ ഓൺലൈനില് വിറ്റ് കാശ് സമ്പാദിക്കുന്ന ഒരു വിഭാഗമുണ്ട് പിന്നെ ഭാഷ ട്യൂഷനുകള് ഓൺലൈനില് എടുക്കുന്ന അധ്യാപകര് പലരുണ്ട് അപ്പോള് ഓൺലൈൻ ഇല്ലെങ്കില് അവർക്ക് അത്രയും ഒരു സാഹചര്യം ഇല്ല അങ്ങനെ പണം സമ്പാദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് പിന്നെ കണ്ടൻ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് വെബ് ഡി ഡിസൈനേഴ്സ് ഉണ്ട് അങ്ങനെ ഓൺലൈനില് വഴിക്ക് ധാരാളം ജോലി നേട് നേടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാര് ഇന്ത്യയില് ഇപ്പോള് ഉണ്ട്